മത്സ്യബന്ധനമെന്ന് പറയുമ്പോള് ആ അവർക്ക് പോകുന്നവര്ക്കറിയാം കടലിലെ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതല് മീനുണ്ടാവുക ഏത് തരത്തിലുള്ള മീനുകളാണുണ്ടാകുക ഓരോ മീനിന്റെ ഓരോരോ ഏര്യകള് ഇന്നയിന്ന ഏര്യകളെന്ന് അവർക്കറിയാം കാരണം ഇവര് സ്ഥിരം പോകുന്ന റൂട്ടും സ്ഥിരം പോകുന്ന കടലുമൊക്കെയായതുകൊണ്ട് ഇവർക്ക് സ്ഥിരം കിട്ടുന്ന മീനുകളും എവിടെയൊക്കെയാണ് ഉണ്ടാവുകയെന്ന് അവര്ക്ക് കൂടുതലുമറിയാം ഇപ്പം കൂടുതലും അയല പിന്നെയെന്താണ് മത്തി കഷ്ണം മീനിന്റെ സ്രാവ് അങ്ങനെ ഓരോരോ നെയ്മീൻ അങ്ങനെ പലതരത്തിലുണ്ട് ഈ നെയ്മീനെന്നൊക്കെ പറയുമ്പോള് നമ്മുടെ നാട്ടില് അത്യാവശ്യം നല്ല റേയ്ഞ്ചാണ് അപ്പം അതിനൊക്കെയെന്ന് പറയുമ്പോള് അത്യാവശ്യം നല്ല റേയ്റ്റ് വരും പത്ത് നാനൂറ് റുപയൊക്കെ വരും അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് അത്യാവശ്യം ഡിമാന്ഡ് ഉണ്ട് അച്ചാറിടാനും പിന്നെ കല്യാണം അങ്ങനെ ഓരോ വലിയ വലിയ ഫങ്ഷന് നെയ്മീനും കാര്യങ്ങളുമാണ് പിന്നെ കൂടുതലും ചെലവാകുന്നത് അയല മത്തി അങ്ങനെയാണ് മത്തിക്കൊക്കെയെന്ന് പറയുമ്പോള് പത്തിരുന്നൂറ് രൂപ അയലയ്ക്കും ആ ഒരു റേയ്ഞ്ചൊക്കെയെ ഉണ്ടാവുകയുള്ളൂ അപ്പോള് കൂടുതല് ആള്ക്കാരത് മേടിക്കും വീടുകളിലേക്കും എന്തായാലും കൂടുതല് അതായിരിക്കും മേടിക്കുക പിന്നെയെന്ന് പറയുമ്പോള് കഷ്ണമ്മീനിന്റെ പലതരം ടൈപ്പുകളുണ്ട് സ്രാവ് അങ്ങനെ ഓരോന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുമുണ്ടാകുക പിന്നെ വരുന്നതെന്ന് പറയുമ്പോള് മീനുകളില് പലതരത്തിലുണ്ട് അതൊക്കെ കറക്റ്റ് അറിയണമെങ്കില് ഇവര് ഈ മത്സ്യത്തൊഴിലാളികളുണ്ടാകില്ലെ അവർക്കതിന്റെ കറക്റ്റ് റേയ്റ്റും കാര്യങ്ങളുമൊക്കെ എന്തായാലുമറിയാം അതുകൊണ്ട് ഒരാളെ ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയാണെങ്കില് നമുക്ക് അത്യാവശ്യം നല്ല മീനും കിട്ടും അത്യാവശ്യം നല്ല സാധനങ്ങളും കിട്ടും റേയ്റ്റും കുറച്ചുകിട്ടും കടകളിലേതെന്നൊക്കെ പറയുമ്പോള് അത്യാവശ്യം നല്ല റേയ്റ്റുണ്ടാകും അയല അങ്ങനെയുള്ള സാധനങ്ങള്ക്കൊക്കെ അത്യാവശ്യം റേയ്റ്റുണ്ടാകും ഇരുന്നൂറൊക്കെയെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മത്സ്യത്തൊഴിലാളിയുടെ അടുത്തുനിന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കില് അതിങ്ങനെ ഓവർ റേയ്റ്റൊന്നും വരില്ല അപ്പം പറഞ്ഞുവരുന്നത് അത്യാവശ്യം നല്ല മീന് കിട്ടണമെങ്കില് അവിടെത്തന്നെ പോയിട്ട് ഇതാക്കുകയാണെങ്കില് നല്ല മീനൊക്കെ കിട്ടും അപ്പോള് റേയ്റ്റും കുറച്ചുകിട്ടും അങ്ങനെ പലതരത്തിലുള്ള ഉപകാരങ്ങളുണ്ടാകും നല്ല മീൻ ഫ്രഷ് മീൻ കിട്ടും അങ്ങനെയൊക്കെ